ബൈക്കിൻ്റെ ട്രെൻഡുകളെന്ന് പറയുമ്പോള് നമുക്കിപ്പോള് ഒരുപാട് പേരെ വെച്ചിട്ട് നമുക്ക് ബൈക്കില് യാത്ര ചെയ്യാൻ കഴിയില്ല പക്ഷേ ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് ബൈക്കില് യാത്ര ചെയ്യുമ്പോൾ ഒന്നിൽക്കൂടുതല് ബൈക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പം അങ്ങനെ പറ്റില്ല പക്ഷേ നമ്മളൊരാള് മാത്രം ബൈക്കില് യാത്ര ചെയ്യുമ്പോള് നമുക്കൊരു ഒരു രസമായിട്ട് നമുക്ക് തോന്നില്ല പക്ഷെ നമുക്ക് നമ്മുടെയൊരു കൂടെ ഒരാളും കൂടി അല്ലെങ്കില് ഒന്നിൽക്കൂടുതല് രണ്ടാളൊക്കെയുണ്ടാകുമ്പോള് നമുക്കത് ഒരു ഹാപ്പിനെസാണ് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനും സംസാരിക്കാനും അതുപോലെ ബൈക്കില് തന്നെ പാട്ട് വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാനുമൊക്കെ ഒരു രസമാണ് കാറിലൊക്കെ നമ്മള് യാത്ര ചെയ്യുന്നില്ലേ പാട്ട് വെച്ചിട്ട് അങ്ങനെ ഡാൻസ് കളിച്ചിട്ട് അങ്ങനെയൊക്കെ യാത്ര പക്ഷെ ബൈക്കില് ഡാൻസ് കളിക്കാൻ പറ്റില്ല അതൊക്കെ ശരിയാണ് പക്ഷെ പാട്ടൊക്കെ ഒന്ന് ഫിറ്റിങ്സൊക്കെ കൊടുത്ത് നമുക്ക് ഒന്നിൽ കൂടുതല് ഒരു ഒന്നില്ലെങ്കില് രണ്ടാളൊക്കെ വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യുകയാണെങ്കില് നല്ല രസമുള്ള കാര്യമാണ് അതേപോലെ കോഴിക്കോട് ടൗണില് പോകുമ്പോഴൊക്കെ എനിക്ക് നല്ലയൊരു എക്സ്പീരിയൻസാണുള്ളത് അതായത് നമ്മള് കോഴിക്കോട് ടൗണില് പോകുമ്പോള് ഒരുപാട് യാത്ര ചെയ്യാതെ ബൈക്കില് പോകുമ്പോള് നമുക്കൊരുപാട് യാത്ര ചെയ്യാനൊരു രസമായിട്ട് തോന്നും അതുപോലെ കുറേ കാഴ്ചകളായിട്ടും അങ്ങനെ പല രീതിക്ക് നമുക്ക് വയലുകള് പ്രകൃതിഭംഗികള് ആസ്വദിക്കാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ബൈക്കില് യാത്ര ചെയ്യുമ്പോഴാണ് നല്ലത് ഈ കോഴിക്കോട് പോകുമ്പോള് നമുക്ക് ഈ ട്രെയിൻ പാളം പോലത്തെയെല്ലാം കാണാനൊക്കെ നമുക്ക് പറ്റും ബൈക്കില് യാത്ര ചെയ്യുമ്പോള് അതൊരു നല്ലയൊരു റൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് കോഴിക്കോട് ടൗണിലേക്ക് പോകുമ്പോഴൊക്കെ അതുപോലെ ബീച്ചിലേക്ക് പോകാനുമൊക്കെയൊരു രസമുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു ലക്ഷ്യസ്ഥാനത്ത് അതായത് ബീച്ചിൻ്റെ ഒരു ലക്ഷ്യസ്ഥാനത്തായാലും നമുക്ക് ആ മണലിലേക്കിറക്കാനും എല്ലാമൊരു രസമുള്ളൊരു സംഭവമാണ് അല്ലാതെ വേറെ വണ്ടിയും കാര്യങ്ങളുമൊക്കെ ആകുമ്പോള് നമുക്ക് ആ ഒരു സ്ഥലത്ത് നമുക്ക് ഇറക്കാൻ പറ്റില്ല പക്ഷെ ബൈക്കാകുമ്പോള് നമുക്ക് നമ്മുടെ ആ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഒന്നിറക്കി ഒരു എന്താണ് പറയുക മണലിൻ്റെ അടുത്തുകൂടിയൊന്ന് പോയി കടലിൻ്റെ അടുത്തുകൂടിയൊക്കെയൊന്ന് പോയി അതില് കൂടെയൊക്കെയൊന്ന് ഓട്ടി അതൊരു നല്ലയൊരു എക്സ്പീരിയൻസായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്